ഹലോ ആ ഒരു ഏജൻസിയല്ലേ ഞാനൊരു കാബ് ഒരു ഓട്ടോ പറഞ്ഞിരുന്നു അത് എനിക്കിതുവരെ എത്തിയിട്ടില്ലല്ലോ അതിന് ഞാൻ പറഞ്ഞ സമയത്ത് എനിക്ക് കിട്ടിയില്ല അതെന്താ താമസിച്ചതിൻ്റെ കാര്യം എന്തായിരുന്നു ഒരു ഓട്ടോയാണ് ഞാൻ ബുക്ക് ചെയ്തിരുന്നത് പക്ഷെ എനിക്കത് സമയത്ത് കിട്ടാൻ എത്തിയിട്ടില്ല നിങ്ങളുടെ സർവീസിൻ്റെ ഒരു പിഴവാണെന്ന് ഞാനത് മനസ്സിലാക്കുന്നു അതുകൊണ്ട് അതങ്ങ് ക്യാൻസൽ ചെയ്തേര് കേട്ടോ അതുപോലെ എനിക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അത് എന്തോന്ന് വൈകിപ്പിച്ചതെന്ന് ഉള്ളതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ തന്നാൽ കൊള്ളാമായിരുന്നു കാരണം ഇത് എനിക്ക് അടിയന്തിരമായിട്ട് പോകേണ്ട ഒരു കാര്യമായിരുന്നു വൈകിയ അത് വൈകിയ നിങ്ങൾ ബുക്ക് ചെയ്ത് നിങ്ങളെ പ്രതീക്ഷിച്ച് നിന്നിട്ട് നിങ്ങള് സമയത്ത് വന്നില്ല അതു നിങ്ങൾ ചെയ്ത ഒരു മോശമായൊരു കാര്യമായിപ്പോയി കാരണം ഒരു കസ്റ്റമറെ നിങ്ങൾ ഒരു ബുക്ക് ചെയ്താൽ അത് അവർക്ക് സർവീസ് കൊടുക്കാമെന്നുള്ളത് നിങ്ങളുടെ ഒരു ഇത് ദൗത്യമാണല്ലോ അതു നിങ്ങൾ ചെയ്തിട്ടില്ല ഇപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് അത്യാവശ്യാണ് അതുപോലെതന്നെ ഞാനിനി നിങ്ങളുടെ ഈ ഓട്ടോയിൽ പോവാൻ താല്പ്പര്യപ്പെടുന്നില്ല ഞാൻ മറ്റു ഓട്ടോയിലെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് നിങ്ങൾ റദ്ദാക്കുക ആട്ടോ ഡ്രൈവറോട് അതിനെ നിങ്ങളതിൻ്റെയൊര് നടപടിയെടുക്കുന്നൊരു ഏജൻസിയായ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സർവീസുകൾ ലാഗാകുന്നതിനെക്കുറിച്ച് ഇച്ചിരി അവേറാകുന്നത് നല്ലതായിരിക്കും അതിനെക്കുറിച്ചുള്ളൊരു നടപടിയൊക്കെ എടുക്കുന്നതും നല്ലതായിരിക്കും കാരണം ഉപഭോക്താക്കൾ ഞങ്ങളെപ്പോലെ ഉള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളിവിടെ വരും എന്ന് വിചാരിച്ചിരുന്നിട്ട് നിങ്ങൾ അത് ചെയ്തു തന്നില്ല അപ്പം ഇത് എൻ്റെ ഇപ്പോഴത് റദ്ദ് ആക്കിയേര് കേട്ടോ